എൻ്റെ പ്രദേശത്ത് ബിസിനസ്സ് പ്രവർത്തനം നടത്താൻ വേണ്ടിയിട്ടുള്ള പ്രകൃതി വിഭവം എന്നു പറയുമ്പം നമ്മൾക്ക് ഒരുപാട് മരങ്ങളുണ്ട് ഇപ്പോൾ പ്ലാവായിട്ടും മാവായിട്ടും ഒരുപാടുണ്ട് അപ്പോൾ അവിടെത്തന്നെ ഒരുപാട് മാവും മാവും മാങ്ങയും ചക്കയും ഒക്കെ ഉണ്ടാകാറുണ്ട് അപ്പോൾ ആ ചക്ക വച്ചിട്ടുതന്നെ നമുക്കൊരുപാട് ഒരുപാട് പലഹാരങ്ങളും അതൊക്കെയുണ്ടാക്കിയിട്ട് നമുക്ക് ബിസിനസ്സ് ചെയ്യാം ഇപ്പോൾ ചക്കതന്നെ ഒരുപാട് പഴുത്ത് വേണ്ടാതായിപ്പോവുന്നുണ്ട് അതൊക്കെ വച്ച് നമുക്ക് പിന്നെ ചക്കപപ്പടം അതുപോലെ ചക്കച്ചിപ്സ് അതുപോലെ ചക്കവരട്ടിയത് പിന്നെ ചക്ക വെയിലത്തിട്ട് ഒണക്കിയിട്ട് അത് അതു പൊരിക്കാനായിട്ട് അതൊക്കെ ഒരുപാട് അതുപോലുള്ള ഒരുപാട് ബിസിനസ്സ് ചെയ്യാം അപ്പോൾ അത് അതൊക്കെ ഒരു പ്രകൃതി വിഭവങ്ങളാണ് അതുപോലെ മാവിലിപ്പോൾ ഒരുപാട് മാങ്ങ സീസൺ ആവുമ്പോൾ ഒരുപാട് മാങ്ങയൊക്കെയുണ്ടാവും അപ്പോൾ അത് നമുക്ക് വില്പന നടത്താം അതുപോലെത്തന്നെ ഒരുപാട് ഇപ്പോൾ മരങ്ങൾ ഇപ്പോൾ റബ്ബർ തോട്ടത്തിലൊക്കെയാണ് ഒരുപാട് വിറക് വിറകൊടിക്കുമല്ലോ അപ്പോൾ ഒരു വേനൽക്കാലമാകുമ്പോൾ ഒരുപാട് വിറകുണ്ടാവും വില്പന ചെയ്യാൻ അത് ഒരു ബിസിനസ്സ് പോലെ നമുക്ക് ചെയ്യാം അതൊക്കെ പ്രകൃതി നൽകുന്ന വിഭവങ്ങൾ തന്നെയാണ് അതുപോലെ ബട്ടർ വില്പന ഇപ്പോൾ ബട്ടറിനൊക്കെ ഭയങ്കര പൈസ അവകാഡോ എന്നുപറയും അതിനൊക്കെ നല്ല പൈസയല്ലേ പുറത്ത് നമുക്ക് അപ്പോൾ അതൊക്കെ ഒരു മരത്തിലിണ്ടാവുകയെന്നു പറയുമ്പോൾ ഒരുപാടുണ്ടാവും അതൊക്കെയൊരു പ്രകൃതി വിഭവങ്ങളാണല്ലോ